ഞാൻ എപ്പോഴെങ്കിലും നൃത്ത മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ പങ്കെടുത്തിട്ടുണ്ട് നൃത്തം മീൻസ് ഡാൻസ് എനിക്ക് പണ്ടേ ചെറുപ്പത്തിലേ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് ഞാൻ പിന്നെ മുമ്പ് ചെറുതിലുണ്ടാവുമ്പോൾ ഞാൻ എന്താക്കിയെന്നു വച്ചാൽ സ്കൂള് കഴിഞ്ഞിട്ട് വന്നാൽ വീട്ടിലേക്കൊരു ഡാൻസ് മാസ്റ്റർ വരുമായിരുന്നു വരുന്നുണ്ടായിരന്നു ആ ടൈമിന് ഞാൻ ഡാൻസ് കളിച്ചിടുണ്ടായി പിന്നെ എന്നു വച്ചാൽ അപ്പോൾ വച്ചാൽ വീട്ടിലേക്ക് ഡാൻസ് ഡാൻസ് പഠിപ്പിക്കാനൊരു മാസ്റ്റർ വരും അപ്പോൾ അപ്പോൾ അവർ പറയുന്നത് കേട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായി അപ്പോൾ ഒരു സമയത്ത് നല്ല മൂഡുണ്ടായിരുന്നു നല്ല മൂഡുണ്ടായിരുന്ന ആ ടൈമിന് നല്ല വണ്ണം കാര്യമായി ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഒരു വച്ചാൽ പാഷനായിട്ടുണ്ടായിരുന്നു ഡാൻസ് എന്നു വച്ചാൽ പിന്നെ ഡാൻസ് കോംപിറ്റിഷന് ഒന്നും പോയിട്ടില്ല പിന്നീട് സ്കൂൾ പരിപാടിക്ക് കളിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ എന്താണ് പറയുക നമ്മളെ ഇതില്ലേ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി മീൻസ് സൊസൈറ്റിയിൽ പരിപാടിയെല്ലാം ഒരിക്കൽ കളിച്ചിട്ടുണ്ടായി അപ്പോൾ ആ ടൈമിൽ ഡാൻസൊക്കെ എന്നു പറയുന്നത് ഒരു ഒരു വികാരമല്ലേ നമ്മളെ ഒരു പാഷനും ആൾക്കാർ കയ്യിൽ നിന്ന് അവരുടെ മുഖത്ത് നിന്ന് വരുന്നൊരു ചിരിയും നമ്മുടെ ഡാൻസും പെർഫോമൻസിലും കണ്ടിട്ട് കഴിഞ്ഞിട്ടെല്ലാം കിട്ടുന്നൊരു ക്ലാപ്പും നല്ലൊരു വൈബ് നല്ലൊരു വൈബ് ഒരു ഫീൽ ആണ് നല്ലൊരു അനുഭവം എന്ന് അത് എന്നു വച്ചാൽ ഒരു തവണ ഒരു ദിവസമെന്നു വച്ചാൽ ആദ്യമായിട്ട് ഞാൻ ഡാൻസ് കളിക്കുന്നത് എന്ന് വച്ചാൽ സ്കൂള് തന്നെയാന്ന് സ്കൂളിൽ പത്താം ക്ലാസ് ആണെന്ന് തോന്നുന്നു പത്താം ക്ലാസ്സോ ഒമ്പതാം ക്ലാസ്സോ എന്നറിയില്ല ആ ടൈമിന് ഞാൻ സ്കൂളിൽ ഒരു ഡാൻസ് കളിച്ചു എന്നു വച്ചാൽ ഞാൻ എൻ്റെ ക്ലാസ്സിലെ എല്ലാവരും ചങ്ങാതിമാരെല്ലാം കൂടിയിട്ട് ഒരു ഡാൻസ് കളിച്ചു അപ്പോൾ ആലുമ ഡോലുമാ പാട്ട് വച്ചിട്ട് കളിയുണ്ട് നല്ലൊരു നല്ല പവറുള്ള കളിച്ച് കഴിഞ്ഞാൽ എനർജെറ്റിക് ആയിട്ട് ഊർജസ്വലമായിട്ട് കളിച്ച ഒരു ഡാൻസാണ് നല്ലൊരു ഫീല് ഫീലിംഗ് വൈബ് ആയിരുന്നു അപ്പോൾ ആ ടൈമിന് അത് ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുത്തു എന്നുവച്ചാൽ നമ്മൾക്ക് ടൈം തന്നത് ഒരു വളരെ കുറഞ്ഞൊരു ടൈംമ് കുറച്ച് ചെറിയൊരു ടൈം മാത്രമേ നമ്മൾക്ക് തന്നിട്ടുണ്ടായിട്ടുള്ളു അപ്പോൾ ആ ടൈമിലെന്ന് വച്ചാൽ ആ ടൈം അഡ്ജസ്റ്റ് ആക്കിയിട്ട് നമ്മൾ എക്സ്ട്രാ ടൈം എടുത്ത് ലീവുള്ള ദിവസം വീട്ടിലേക്ക് വന്ന് വീട്ടിലേക്ക് എല്ലാവരെയും ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് വന്ന് ചങ്ങാതിമാരെല്ലാം വീട്ടിലേക്ക് വന്നിട്ട് ആയിട്ടാണ് നമ്മൾ ഡാൻസ് കളിച്ചതെന്നുവച്ചാൽ എല്ലാവരും പ്ലാനിംഗ് ആക്കിയിട്ട് വന്ന് വീട്ടിലേക്ക് വന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡാൻസ് പ്രാക്റ്റീസ് ചെയ്തിട്ട് അങ്ങനെ കുറേ അപ്പം ലാസ്റ്റ് സ്റ്റേജിൽ കയറുമ്പോൾ ആദ്യമായിട്ട് സ്റ്റേജി കയറുന്നതിൻ്റെ ഒരു ഫിയറ് എല്ലാവർക്കും അപ്പോൾ ഫസ്റ്റിലെത്തെ ഒരു രണ്ട് ഫസ്റ്റിലെത്തെ ഒരു പത്ത് സെക്കൻഡ് ഭയങ്കര കൈയ്യും കാലുമൊക്കെ ഒരു വിറയൽ പോലെയൊക്കെ വന്നിട്ട് ഒരു വല്ലാത്ത ഒരു അനുഭവം ആയിരുന്നു അപ്പോൾ ആ ടൈമിന് പിന്നെ എന്നു വച്ചാൽ പാട്ട് തുടങ്ങിയല്ലോ പിന്നെ എന്തായാലും ഡാൻസ് സ്റ്റേജിൽ കയറിക്കഴിഞ്ഞാൽ കളിക്കാത്തതായി ഇറങ്ങാൻ കഴിയില്ലല്ലോ പിന്നെ എല്ലാവരും കൂടിയിട്ട് എല്ലാവരും ഒരുമിച്ചൊരു നല്ല ഒരു പ്രകടനം കാഴ്ച വച്ചു എല്ലാവർക്കും ഒരു ഇഷ്ടപെട്ട രീതിയിൽ നല്ലൊരു അപ്പോൾ ആ ടൈമിൽ ഞാൻ നല്ല ഡാൻസ് കളിക്കുന്ന ടൈമിന് ആ ടൈമിന് ഞാൻ നല്ല മീൻസ് ബോഡി നല്ല ശരീരമെല്ലാം നല്ല വഴങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചാടുക മറിയൽ ഉണ്ടായി നല്ല അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ആവുമ്പോൾ നല്ലൊരു കയ്യടി കിട്ടി നമ്മൾക്ക് കയ്യടി അപ്പോൾ ആ കയ്യടിയിൽ എന്നുവച്ചാൽ സ്കൂളിൽ നിന്ന് പിന്നെ ചെറിയ കുട്ടികൾകൊക്കെ ഡാൻസ് പഠിപ്പിക്കാൻ നമുക്കൊരു റിക്വസ്റ്റ് വന്നു പ്രിസിപ്പാളിൻ്റെ അടുത്ത് നിന്ന് അപ്പോൾ ചില ആദ്യമായി കിട്ടുന്ന ഒരു അവസരമല്ലെ വെറുതെ എന്തിനാണ് പാഴാക്കുന്നത് കിട്ടിയാൽ ഒരു വാക്ക് പോയാൽ ഒരു ഊട്ടി എന്നെല്ലാം പറയുന്ന കണക്കെ നമ്മൾ എന്നുവച്ചാൽ ഞാനും എൻ്റെ ഒരു രണ്ട് ചങ്ങാതിമാരുണ്ട് ഉണ്ടായി അവർ രണ്ടാളും കൂടിയിട്ട് എന്താക്കി കുട്ടികൾക്ക് ഡാൻസ് പഠിപ്പിക്കാൻ പോയി നമ്മൾ വിചാരിച്ചു ഫസ്റ്റ് വിചാരിച്ചു വളരെ എളുപ്പമായിരിക്കും ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നത് പക്ഷെ അല്ല അല്ല നമ്മൾ വിചാരിച്ച ഫുള്ള് കാൽകുലേഷൻ ഫുള്ള് തെറ്റി ആദ്യം നമ്മൾ എന്നുവച്ചാൽ നമ്മൾ കളിച്ച അതേ പോലെയുള്ള ഡാൻസ് കളിക്കാൻ പക്ഷെ അവർക്ക് അത് അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ അവർ അവരെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു തുടങ്ങി പിന്നെ ഞാൻ എന്താക്കി നമ്മൾ ഫുള്ള് ഉത്തവാദിത്തം ഏറ്റെടുത്ത് കുറച്ച് റെസ്പോൺസിബിളിറ്റി വീണ്ടും കൂടിയത് കൊണ്ട് തന്നെ നല്ലൊരു രീതിയിൽ കുട്ടികളെ പറഞ്ഞു മനസിലാക്കാനും അവരെ ഡാൻസിലേക്ക് നയിക്കാനും നല്ല പ്രകടനം നയിക്കാനും ഇതാക്കി ആ സമയത്ത് നമ്മൾ അവർ ഡാൻസ് പിന്നെ എന്തെന്നു വച്ചാൽ കോളേജ് ആർട്സ് ഡേ മീൻസ് സ്കൂളിൻ്റെ ആർട്സ് ഡേയാണ് ആ സമയം അപ്പോൾ സീനിയർസിന് നമുക്ക് സീനിയർസ് പത്താം ക്ലാസിൽ പഠിക്കുന്ന അപ്പോൾ ആ ടൈമിൽ നമ്മൾക്ക് ഇതുണ്ടായിട്ട് ഏത് ഡാൻസ് കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ട് അപ്പോൾ നമ്മൾ എന്താക്കി വച്ചാൽ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് അവർ സ്റ്റേജിൽ കയറുമ്പോൾ നമ്മളോട് അവിടുത്തെ കോർഡിനേറ്റ്സ് പറഞ്ഞു ടീച്ചർമാരൊക്കെ പറഞ്ഞു നിങ്ങളും കയറ് സ്റ്റേജിൽ അവർ സൈഡിൽ നിൽക്ക് അവർ പഠിപ്പിച്ചു കൊടുത്തതല്ലേ അപ്പം അവർ അനൗൺസ് ചെയ്ത് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ എന്നു വച്ചാൽ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലെ അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് അത് നിന്നിട്ട് ഡാൻസ് ഇത്രയും ക്ലാസ്സിൽ ഡാൻസ് ഈ ഇന്നൊരു കാറ്റഗറിയിൽ പിള്ളേരൊക്കെ കളിക്കുന്നത് ഇത്ര പേർ ഇങ്ങനെ അവരുടെ പേര് പറഞ്ഞ് പാർട്ടിസിപ്പൻറ്റ് പങ്കെടുക്കുന്നവരുടെ പേര് പറഞ്ഞ് എന്നിട്ട് ആയിട്ട് ലാസ്റ്റ് ഡാൻസ് ഇത് കോറിയോഗ്രാഫി ആക്കിയത് നമ്മൾ എന്ന് വച്ചാൽ എൻ്റെ പേര് എൻ്റെ രണ്ട് ഫ്രണ്ട്സിൻ്റെ പേരും പറഞ്ഞിട്ടപ്പോൾ അവർ തുടങ്ങാം എന്നു പറഞ്ഞു സ്റ്റാർറ്റിങ് പറയും സ്റ്റാർട്ടിങ്ങിനെല്ലാവരും ജസ്റ്റ് ഇങ്ങനെ കൗതുകത്തോടെ നോക്കുന്നു ഇവർ എന്താണ് കാണിച്ചു വച്ചിരുന്നത് ഇത് എന്ത് എന്ത് എന്ത് തേങ്ങയാന്ന് ഇവർ കാണിച്ചു വച്ചിട്ടുണ്ട് എന്നെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരു പ്രതീക്ഷയിൽ നോക്കുന്നുണ്ട് അപ്പോൾ പുള്ളർ സ്റ്റേജിൽ കയറി ഒരു പ്രകടനം കാഴ്ച വച്ചു നമ്മൾ വിചാരിച്ച അത്രയും നമ്മൾ വിചാരിച്ചതിനേക്കാളും അവർ നല്ല എനർജറ്റിക്കായിട്ട് കളിച്ച് എന്താണെന്നു വച്ചാൽ നമ്മൾ പ്രേമത്തിലെ പാട്ടില്ലേ റോക്ക് കൂത്ത് സേന്ത് വന്ത റോക്ക കൂത്ത് ഇത് താടാ ഇങ്ങനെ പറഞ്ഞൊരു പാട്ടില്ലേ ആ പാട്ടിലൊരു ഡാൻസ് കളിച്ച് ലാസ്റ്റ് ഇറങ്ങുമ്പോൾ കയ്യടി കിട്ടി എൻ്റെ മോനെ ആ കയ്യടിയിൽ മനസ്സും നിറഞ്ഞു എല്ലാം നിറഞ്ഞു വൈബ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ് കിട്ടുന്നവർ ഫീല് അനുഭവം എൻ്റെ മോനെ എന്തോ ഒരു ഫീല് കിട്ടിയിട്ട് ഇപ്പം കാര്യമായ നല്ല ഫീലിംഗ് ആയിരുന്നു അത് എന്നു വച്ചാൽ ലൈഫിൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനത്തെ ഒക്കെ കിട്ടുന്നത് അപ്പോൾ ഇവർ എല്ലാം വച്ചാൽ എല്ലാവരുടെ ജീവിതത്തിലും ആദ്യമായിട്ട് വരില്ലേ ഇങ്ങനെ ഒക്കെ അപ്പോൾ വരുന്നത് എന്നു വച്ചാൽ എല്ലാവരേം ജീവിതം എന്ന് വച്ചാൽ ആദ്യമായിട്ടല്ലേ എല്ലാവരും ജീവിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം നല്ലൊരു രീതിയിലുള്ള അനുഭവം തന്നെയായിരുന്നു അത് പിന്നെ വച്ചാൽ ഡാൻസ് പിന്നെ ഡാൻസൊക്കെ പ്ലസ് വൺ പ്ലസ് ടുവിൽ ഒന്നും അങ്ങനെ കലാപരമായിട്ട് രീതിയിൽ ഞാൻ ഉണ്ടായില്ല ഞാൻ ഒഴിഞ്ഞു മാറി നിന്നു പിന്നെ ഇപ്പോൾ കോളേജിൽ എത്തിയിട്ടാവുമ്പോൾ കോളേജിൽ ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ എന്ന് വച്ചാൽ നമ്മൾ ബോയ്സിസ് കോളേജ് അല്ലെ അപ്പം നമ്മൾ ഡാൻസ് കളിക്കുന്ന ചില ടീം എല്ലാം ആക്കിയിട്ട് പോകുമ്പോൾ ഒരു ഇതില്ല മീൻസ് ഒരു പാങ്ങില്ല അപ്പോൾ നമ്മൾ എന്താക്കി വച്ചാൽ അവിടെ പാട്ടിട്ടിട്ട് അവർ ഡാൻസ് കളിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഇപ്പറുത്ത് നിന്ന് നമ്മൾ ഡാൻസ് കളിക്കും അപ്പോൾ ഓടിയൻസ് നോക്കുന്നത് കാണികൾ നോക്കുന്നത് അവരെ ആയിരിക്കില്ല നമ്മളെ ഡാൻസ് നമ്മൾ എന്തെല്ലാം കളിക്കുന്നതെന്ന് അവർ നോക്കും ഇങ്ങനെ അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു നല്ലൊരു എന്താണ് പറയുക നല്ലൊരു ഫീല് ആയിരുന്നു അപ്പോൾ ആ ടൈമിലൊക്കെ അതൊക്കെ നല്ലൊരു അനുഭവം തന്നെ അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു അതിൻ്റെ ഒരു കിടപ്പ് കാര്യത്തിൻ്റെ ഒരു കിടപ്പ് അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ച് വരുമ്പോൾ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു പിന്നെന്താണ് പറയുക നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ചിലർ ഇങ്ങനെ അവർ ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ അവരെ ഞാൻ പ്രോത്സാഹിപ്പിക്കും എന്നല്ലാതെ ഒരിക്കലും നീ ഡാൻസ് കളിക്കണ്ട പാകം ഉണ്ടാവില്ല എല്ലാവർക്കും കളിക്കാൻ പറ്റും എവെരിബഡി ക്യാൻ ഡാൻസ് എന്ന് അല്ലെ എല്ലാവർക്കും അവരുടേതായ രീതിയിൽ അവർക്ക് ഡാൻസ് കളിക്കാം മീൻസ് അതൊക്കെ അങ്ങനെയാണ് എന്നു വച്ചാൽ പ്രകൃതിയെ എന്നു വച്ചാൽ എല്ലാ ജീവിജാലങ്ങൾക്കും ഡാൻസ് കളിക്കുന്നത് എന്നു തന്നെ പറയാം മീൻസ് എല്ലാവർക്കും സന്തോഷം വരുമ്പോൾ ഡാൻസ് കളിക്കുന്നവരുണ്ട് സങ്കടം വരുമ്പോൾ ഡാൻസ് കളിക്കുന്നവരുണ്ട് അങ്ങനെ എന്തെല്ലാം പല ടൈപ്പ് ആൾക്കാരുണ്ടാവും അപ്പോൾ എന്താണെന്ന് വച്ചാൽ അങ്ങനെയൊക്കെയാണ് കാര്യത്തിൻ്റെ കിടപ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നല്ല ഒരു അനുഭവം തന്നെയാണ് എന്നു വച്ചാൽ ആദ്യമായിട്ട് വേദിയിൽ കേറിയിട്ട് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത ആൾ കയറുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് അതൊക്കെ വേറെയാണ് എന്നു വച്ചാൽ പിന്നെ ചെറുത് കളിക്കുമ്പോൾ വച്ചാൽ ഡാൻസ് കളിച്ചിട്ട് ട്രോഫി കിട്ടിയോ എന്ന് ചോദിച്ചാൽ ആ സൊസൈറ്റിൻ്റെ പറഞ്ഞില്ലേ സൊസൈറ്റി ആ സൊസൈറ്റിൻ്റെ ഒരു പരിപാടിക്ക് ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട് ഞാൻ സിംഗിൾ ഡാൻസ് കളിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം ഞാൻ കയറുമ്പോൾ ഭയങ്കര ടെൻഷൻ എന്നു വച്ചാൽ എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളില്ല അവിടെ മീൻസ് ഇത് ഡാൻസ് ഒന്നും കളിക്കാൻ എല്ലാവരും കാണാൻ വന്നു കാണികളായിട്ട് വന്നതാണ് ബാക്കി എല്ലാവരും സൊസൈറ്റിക്കാർ ആരെങ്കിലും ചോദിക്കും അപ്പോൾ ഞാൻ കയറിയിട്ട് ആയിട്ട് ഒന്നും നോക്കിയില്ല കണ്ണും പൂട്ടിയിട്ട് ഒരു ഡാൻസ് അങ്ങ് കളിച്ചു അതെ പാട്ടിൽ തന്നെ കളിച്ച് ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ടാവുമ്പോൾ നല്ല എല്ലാവരും കൈ കയ്യൊക്കെ തന്ന് നല്ലൊരു നല്ല പ്രകടനായിരുന്നു നല്ലൊരു ഡാൻസ് ആയിരുന്നു എന്ന് എല്ലാവരും പറയുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അത് വേറെ തന്നെ ഒരു അനുഭവം തന്നെയായിരുന്നു നല്ലൊരു ഫീലായിരുന്നു അതൊക്കെ പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇതൊക്കെയാണ് എൻ്റെ ഡാൻസിൽ ഐ മീൻ നൃത്ത ചുവടുകൾ വച്ചതിൻ്റെ ഒക്കെ എനിക്കൊരു കിട്ടിയ ഒരു അനുഭവം എന്നൊക്കെപ്പറഞ്ഞാൽ ഇതൊക്കെയാണ് എൻ്റെ ഒരു അനുഭവം അപ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമാണ് എന്നു വച്ചാൽ മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര അതുപോലെ അനുഭവമാണെന്നൊക്കെ പറയുന്ന പോലെ ആദ്യമായി സ്റ്റേജിൽ കയറിയ എല്ലാവരെയും കയ്യിൽ നിന്നും കിട്ടുന്നൊരു പ്രശംസ അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല അതൊക്കെ അനുഭവിച്ചറിയേണ്ടൊരു ഫീലിംഗ് തന്നെയാണ് അനുഭവം തന്നെയാണ് അങ്ങനെത്തൊരു അനുഭൂതി എല്ലാവർക്കും കിട്ടണം എന്നില്ല കുറേ ആൾക്കാരൊക്കെ എന്താണെന്നു വച്ചാൽ എന്താണ് പറയുക നാണം കൊണ്ട് സ്റ്റേജിൽ കയറാത്തവരൊക്കെയുണ്ട് ഇപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വച്ചാൽ നാണിക്കണ്ടടൊ നമ്മളെ ജീവിതത്തിൽ കിട്ടുന്നൊരു അവസരമല്ലേ എപ്പോഴും കിട്ടിയെന്ന് ഇരിക്കില്ല കിട്ടിയ അവസരം നമ്മൾ നല്ല രീതിയിൽ ചെലവഴിക്കുക മുതലാക്കുക എന്നൊക്കെ പറയുന്ന പോലെ കിട്ടിയ അവസരം നമ്മൾ പാഴാക്കാതെ കിട്ടിയ അവസരം വെറുതെ കളയാതെ നല്ല രീതിയിൽ യൂസ് ആക്കണം അത്രയേ എനിക്ക് പറയാനുള്ളു എന്നു വച്ചാൽ ജീവിതം ഒന്നേ ഉള്ളു ഡാൻസ് കളിച്ച് തീർക്കുക അത്രയേ ഉള്ളൂ നല്ലൊരു ലൈഫ് അല്ലെ വെറുതെ കളയുന്നത് എന്തിനാണ് എല്ലാം നല്ല സന്തോഷത്തിലും നല്ല ഒരു എന്താണ് പറയുക നല്ല രീതിയിലും ഒക്കെ കൂടിയിട്ട് തീർക്കണം അതൊക്കെയാണ് ഞാൻ ഈ നൃത്ത ചുവടുകൾ കൊണ്ട് ഡാൻസ് കളിക്കുന്നതിനെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു അനുഭവം